ആ അതെ പ്രിൻസിപ്പാളാണ് സംസാരിക്കുന്നേ ആരാണ് അതെ അല്ലേ കുട്ടിക്ക് എൽ കെ ജിയിലേക്ക് അല്ലേ ഓക്കെ കുട്ടിയുടെ പേര് എന്താണ് അഹന്യ എന്നല്ലേ ഓക്കെ അഹന്യ ഫുൾ ഫുൾ നെയിമ് അഹന്യ കുമാർ അതെ അല്ലേ അപ്പോൾ എന്താണ് ഇപ്പോൾ എന്ത് അറിയാൻ ആണ് വിളിച്ചത് പ്രൊസീജിയേർസ് ഡൊണേഷൻ ട്വൻറ്റി തൗസൻഡ് ആണ് ഞങ്ങളിപ്പോൾ വാങ്ങുന്നത് ഫീസ് രണ്ട് ലക്ഷം വരുന്നുണ്ട് രണ്ട് ലക്ഷമാണ് അപ്പോൾ ഉം നമ്മൾക്ക് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടക്കാം അതെ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ അഡ്വാൻസായിട്ട് ആ പെട്ടെന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുവാന്ന് അല്ലെങ്കി കൊറേ ൽ കുറേ പേര് വിളിക്കും നമുക്ക് കുറച്ച് സീറ്റ് അല്ലേ ഉള്ളൂ ഒരു അമ്പത് സീറ്റ് ആ അതെ ഒരു എയ്റ്റി പെർസൻറ്റേജ് തീർന്നിട്ടുണ്ട് ഈ ഈ നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി പിന്നെ ഇത് എൻ്റെ വാട്ട്സ്ആപ്പിൽ ഞങ്ങളുടെ ഇമെയിൽ ഐഡി ഉണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് വച്ചിട്ട് ഒരു മെയിൽ അയച്ചാൽ നല്ലതായിരിക്കും കുട്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റെ പേര് ദാമോദരൻ ഉണ്ണി മകൻ ഡെൽമാൻ ഇടകൊച്ചി ഓക്കെ ഓക്കെ ആ അങ്ങനെ ചെയ്താൽ മതി ആർക്കും കൊടുക്കേണ്ട കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ കൈയ്യിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് തന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊസീജിയേർസ് കഴിഞ്ഞിട്ട് ആവുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അയക്കാം അപ്പോൾ അതിലേക്ക് ഫണ്ട് വന്നാൽ നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും കുറച്ച് ബിസിയാണ് രണ്ട് മൂന്ന് പേര് കാണാൻ വന്നിട്ടുണ്ട് എം എൽ എ ഒക്കെ അപ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കും ഓക്കെ ഓക്കെ